സംഗീത റിയാലിറ്റി ഷോകൾ കാണാറുണ്ട് അവ ആസ്വദിക്കാറുമുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള നിരവധി സംഗീത പരിപാടികൾ എല്ലാ ചാനലിലുമുണ്ട് അവയെല്ലാം കാണാറുണ്ട് സംഗീതത്തെ മെച്ചപ്പെടുത്താൻ ഞാൻ പൊതുവേ പാട്ടൊരുപാട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതിനാൽത്തന്നെ ഇവയെല്ലാന്തന്നെ ആസ്വദിക്കാൻ ഇതിലൂടെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പൊതുവേ പാട്ട് പാടാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനാൽതന്നെ പാട്ട് പാടുവാനുള്ള എൻ്റെ കഴിവിനെ അത് മെച്ചപ്പെടുത്തിയെന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ ആസ്വാദന ശേഷിയേ അത് വളരെ അധികം സഹായിക്കുന്നുണ്ട് പലരീതിയിലോരോ പാട്ട് കേൾക്കുമ്പോള് അതിനെ വിലയിരുത്തുവാനും അത് മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട് എന്നാൽത്തന്നെയും പാട്ട് പാടുന്ന അല്ലെങ്കില് പാട്ട് പഠിക്കുന്ന കുട്ടികൾക്കതൊരുപാട് ഉപയോഗപ്രദമാണ് അവർക്കൊരു ഗുരുവിൽ നിന്നു ലഭിക്കുന്ന അതേ നിർദ്ദേശങ്ങൾ ടി വിയിലൂടെ പ്രഗൽഭരായ വ്യക്തികളിൽനിന്നും മനസ്സിലാക്കുവാൻ ഇവയിലൂടെ കഴിയുന്നുണ്ട്